ഞങ്ങളുടെ പ്രദേശത്തു മാത്രമായി ആഘോഷിക്കുന്ന കാലികമായ ഉത്സവങ്ങൾ എന്നു പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിവരുന്നത് വള്ളിയൂർക്കാവ് ഉത്സവമാണ് പൊതുവെ എല്ലാ ഉത്സവങ്ങളും ഒന്നും രണ്ടും ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണെങ്കിൽ വള്ളിയൂർക്കാവ് ഉത്സവം നീണ്ടു നിൽക്കുന്നത് പതിനാല് ദിവസമാണ് പൊതുവെ ജാതിഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഉത്സവമാണ് വയനാട്ടു ജില്ലയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും ആഘോഷപൂരിതവും ഏറ്റവും ജനങ്ങൾ എത്തിച്ചേരുന്നതുമായ ഉത്സവമാണ് വള്ളിയൂർക്കാവ് ഉത്സവം